ഞാനും പോയിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് അതിനുശേഷം വലിയതായതിൽപ്പിന്നെ എന്നെ ടൂർ ഒന്നും വിട്ടിട്ടില്ല ചെറിയകാലത്ത് ഞങ്ങളുടെ സ്കൂളീൽനിന്ന് ടൂർ പോകുമ്പം വല്ല പിന്നെ പടിഞ്ഞാറത്തറ ഡാം കോഴിക്കോട് ബീച്ച് നക്ഷത്ര ബംഗ്ളാവ് പിന്നെ വിസ്മയ കണ്ണൂർ വിസ്മയ പിന്നെ സ്നേക്ക് പാർക്ക് അങ്ങനെയുള്ള സ്ഥലം പറശ്ശിനിക്കടവ് അവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ കേട്ടോ ഈ യു പി ഹൈ സ്കൂൾ സെക്ഷനിൽ എന്റൊരു ഊഹം ശരിയാണെങ്കിൽ എട്ടാം ക്ലാസ്സ് വരെ ഞാൻ ടൂർ പോയിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് ഫാമിലീൻ്റെ കൂടെ മാത്രമേ പോയിട്ടുള്ളൂ സ്കൂളിൽനിന്ന് യാത്രയായിട്ട് ആ സ്ഥലങ്ങളിലൊക്കെയാണ് പോയിട്ടുള്ളത് അവിടെ ഓർമ്മ വച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടുതലും ഇഷ്ടം കോഴിക്കോടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ് കാരണം വൺ ഡേ ട്രിപ്പാണല്ലോ നമ്മൾ ഇതെല്ലാം വൺ ഡേ ട്രിപ്പാണ് രാവിലെ പോകുന്നു രാത്രി ഒരു പത്ത് മണി ആകുമ്പോഴേയ്ക്കും തിരിച്ചു വരുന്ന രീതിയിലാണ് സാധാരണ ടൂറൊക്കെ ഇത് അറൈഞ്ച് ചെയ്യുക പിന്നെ ഓൾ വയനാടും ഉണ്ടായിരുന്നു വയനാട് പൂക്കോട് ഇടയ്ക്കൽ ഗുഹ ആ സമയത്ത് അതൊക്കെയായിരുന്നു കുറച്ച് ഇതായിട്ട് എന്നിട്ട് അവിടെ നക്ഷത്ര ബംഗ്ളാവ് പോയിരുന്നതും അപ്പം നമുക്ക് ഭയങ്കര കൗതുകമായിരിക്കും അതൊക്കെ കാണാൻ കാരണം ഒരു തിയേറ്റർ പോലത്തെ സ്ഥലത്ത് കയറുന്നു ആ നക്ഷത്രമൊക്കെ നമ്മൾ ആകാശത്തിൽ എടുത്ത് നക്ഷത്രത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീലൊക്കെ പിന്നെ ബീച്ചിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് ബീച്ച് കാണുന്നത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ബീച്ച് കാണുന്നത് ഞാൻ സ്കൂളിൽനിന്ന് ടൂർ പോയതിനു ശേഷം ഉള്ളതാണ് കേട്ടോ അതിനുശേഷം എത്രയോ പ്രാവശ്യം ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ഇത് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പം ടൂർ പോയതാണ് ആ ഒരു ഓർമ്മയാണ് പിന്നെ അതു കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ കണ്ണൂർ പോകുമ്പം സ്നേക്ക് പാർക്കിൽ പോയത് അവിടെ മുതലേനെ കണ്ടത് അതൊക്കെ ഇപ്പോഴും മെമ്മറിയിൽ കാരണം എത്ര വർഷമായി ഇപ്പോൾ എത്ര കാലം കഴിഞ്ഞു അപ്പം അതൊക്കെ ഞങ്ങൾ അന്ന് ഞാനന്നാണ് മുതലേനെ കാണുന്നത് ഒരു ഈ ഉടുമ്പെന്നു പറയുന്ന സാധനം ഉണ്ട് അതിനെ കുറേ സ്നെയ്ക്കിനെ പിന്നെ വിസ്മയ കാണാൻ പോയി അതൊക്കെ ഭയങ്കര നമ്മൾ ആ വെള്ളത്തിൽ കയറുന്ന റൈഡിൽ കയറുന്ന പിള്ളേരുടെ കൂടെ നടക്കുന്ന ടീച്ചർ വഴക്കു പറയുന്നത് എല്ലാവരും കൂട്ടം തെറ്റി പോവാതിരിക്കണം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അങ്ങനൊക്കെ പറഞ്ഞ് അതൊക്കെ ഭയങ്കര നൊസ്റ്റു ഫീൽ ആണ് കാരണം ഇന്നും നമ്മുട മെമ്മറിയിൽ സൂക്ഷിക്കേണ്ട നമ്മുടെ കുട്ടിക്കാലത്തെ മനോഹരമായ കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ടൂറിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യം നമുക്ക് ഇനി അതൊന്നും തിരിച്ചു കിട്ടില്ല നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മുടെ ആ പഴയകാലം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല അത് എന്നും ഓർക്കാനും ഇഷ്ടം ഉള്ളൊരു കാര്യമാണ് നല്ലൊരു മെമ്മറിയാണ്